കയറുകൊണ്ട് പലപല കൗശല വസ്തുക്കളും ഉണ്ടാക്കാം കയറുണ്ടാക്കുന്നത് നമ്മള് തൊണ്ട് പിന്നെ ശ തൊണ്ട് ശേഖരിച്ച് അത് വെള്ളത്തിലിട്ട് രണ്ടാഴ്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അതിനെ നമ്മളെടുത്ത് അടിച്ച് അതിന്റെ ക അതിന്റെ അതെല്ലാം ചോറും കയറിന്റെ ചോറും അല്ല തൊണ്ടിന്റെ ചോറും ഇതെല്ലാം കളഞ്ഞ് അതിനെ ക അതിന്റെ ചകിരി എടുക്കുക ചകിരിയെടുത്തേച്ചും അതിനെ നന്നായിട്ട് എന്നാ എല്ലാം വെയിലത്തിട്ട് ഉണക്കി നമ്മുടെ റാട്ട് വഴിയാണ് ഈ കയറുണ്ടാക്കുന്നത് കയറ് അത് ഭാല ഭ കയറ് കയറുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ടല്ലൊ കയറുകൊണ്ട് നമ്മള് എന്നാ വേ വേലി കെട്ടുന്നു വേലി കെട്ടുന്നു അയ കെട്ടുന്നു ചവിട്ടി ഉണ്ടാക്കുന്നു പിന്നെ എന്തുവ പല പല ഐറ്റങ്ങളും നമ്മൾ ഈ കയറുകൊണ്ടെടുക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുട്ടനാട്ടിലാണേലും ഈ എന്നാൽ ഈടുകൾ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കയർ വസ്ത്രം എന്ന് പറയുന്ന ഒരു ഒരു ചീന കയറുകൊണ്ടിങ്ങനെ വലിയ എണ്ണാ പാ പോലെ ഉണ്ടാക്കിയിട്ട് ഈ കയർ ഇത് വിരിക്കുകയാണ് ഈ നമ്മുടെ ഈ ഈടൊക്കെ ഇടിഞ്ഞു പോകാതിരിക്കാനും കൃഷി സ്ഥലങ്ങളുടെ നമ്മുടെ ഈ അരി കൃഷിയൊക്കെ ചെയ്യുന്ന ഈടുകളില്ലെ കൃഷിയെ കണ്ടതിന്റെ ഈ ഈടുകൾ ഈടുകളിൽക്കൂടി എല്ലാം ഈ ഭൂ വസ്ത്രമെന്നോ അങ്ങനെ ഏതാണ്ടാണ് ഇപ്പോൾ ഇതിന് പറയുന്നത് ഭൂവസ്ത്രം അത് വിരിക്കുക അത് നമ്മള് അത് വിരിച്ച് കഴിയുമ്പം അത് നമ്മളുടെ ഈ തൊഴിലുറപ്പുകാരാണ് ഈ സർക്കാരിൽ നിന്നാണ് അത് നമ്മൾ ഈ പ ചെയ്യുന്നത് പഞ്ചായത്ത് വഴിയാണ് അത് നമുക്ക് ചെയ്ത് തരുന്നത് അന്നേരം അപ്പം അത് എല്ലാ ഈടുകളും അത് ചെയ്യുമ്പഴത്തേക്കും പിന്നെ പുല്ലു വളർച്ച കുറയും അതുപോലെ തന്നെ ഈടുകള് ഇടിഞ്ഞ് പോകത്തില്ല പിന്നെ അതിന് നല്ല ഉറപ്പ് ഉണ്ടാകും ഈടിന് ഈടിനും വഴിക്കും ഒക്കെ നല്ല ഉറപ്പുണ്ടാകും അങ്ങനെ വരെ പലപല കാര്യങ്ങളുണ്ട് ഈ ഈ ഭൂ വസ്ത്രം കൊണ്ട് അതുപോലെ തന്നെ ഈ പുല്ലുകള് കിളുക്കാതെ നമ്മുടെ ഈ ഈ ഈടിനെ ബലപ്പെടുത്തി നിർത്തുകയാണ് അപ്പം ഈ അതിന് വെള്ളമൊക്കെ പൊങ്ങുബോഴാണെങ്കിലും ഈ ഈട് എന്നാ മട വീഴുന്നൊരു പ്രസ്ഥാനം ഉണ്ട് നമ്മുടെ ഇവിടെ അപ്പം ഈ മടകളൊന്നും വീഴാതിരിക്കാൻ ഈടിന് ഉറപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എന്നാൽ ഇപ്പം ഈ ഇത് ഈടെലോട്ടിട്ട് അങ്ങോട്ട് ഇട്ട് നിറച്ച് അങ്ങോട്ടിട്ട് കഴിയുമ്പം നല്ല ഈട് ഇടിയാതേയും പൂവ് എന്നാ പുല്ല് കിലുക്കാതെയും ഈടിന് ബലവും കൊടുത്ത് വളർത്തുന്ന ഒരു വെക്കുന്ന ഒരു സാധനമാണ് അതാണ് ഈ ഭൂ വസ്ത്രമെന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്നാ പലപല എന്നാ ഇത് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ കയറുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു നമുക്ക് ഇപ്പം ഒരു പച്ചക്കറി ഇടുക അതിന് നമുക്കൊരു പടങ്ങ് വേണം അപ്പം നമ്മൾ ഈ കയറ് മേടിച്ച് കൊണ്ട് വന്നാണ് നമ്മൾ ഈ പടങ്ങ് കെട്ടുന്നത് പടങ്ങ് കെട്ടും പിന്നതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കുട്ടനാട്ടിലാണെങ്കില് നമ്മൾ ഈ വാഴയ്ക്കും പിന്നെ മറ്റുള്ളതിനുമൊക്കെ ഒരു താങ്ങ് കൊടുക്കും താങ്ങ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കെ കയറുണ്ടെങ്കിലേ നമുക്ക് ഈ താങ്ങി കെട്ടാൻ ഒക്കത്തുള്ളൂ അങ്ങനെ കയറുകൊണ്ട് നമുക്ക് പലപല ഉപയോഗങ്ങളാണ്